ഇപ്പഴും സ്കൂളുകളിൽ പഠിപ്പിക്കാന്നു പറഞ്ഞാ അവരുടെ ഈ സ്കൂളുകള് സർക്കാർ തരുന്നതായാലും മറ്റ് സ്കൂളുകൾ ആയാലും തരുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ അവര് തരുന്ന പാഠഭാഗങ്ങളിൽ മറ്റുള്ളവരുടെ കഥ അതിനെക്കുറിച്ച് ആണ് പറയുന്നേ സത്യം പറഞ്ഞാൽ ഈ സ്കൂളിലെ ടീച്ചർമാർ എങ്ങനെ ഒരു സ്ഥലത്തു പോയാൽ എങ്ങനെ മര്യാദ മര്യാദയാണ് മെയിൻ ആയിട്ട് അതിനകത്തു നോക്ക മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം അതുപോലെ നമ്മക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും നേരിടാൻ ഉള്ള ഒര് ഇത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആണ് മെയിനായിട്ട് ഈ സ്കൂളുകളിലായാലും അവരവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ എപ്പോഴും നമുക്ക് ആവിശ്യമുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലാണ്ട് മറിച്ച് ഈ പാഠങ്ങളിൽ നടക്കുന്ന കഥകൾ ഇതെല്ലാം കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതല്ല ശരി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവിശ്യങ്ങൾ വരുന്നോ അതിന് ഉപകാരപരമായ കാര്യങ്ങളാണ് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടത്